മലയാളികൾ അവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളെ ആഘോഷിക്കാനും ആദരിക്കാനും അവരുടെ ഭാഷ ഭാഷയ്ക്ക് മുൻതൂക്കം തന്നെ നൽകാറുണ്ട് അവർ ആദ്യമാദ്യമൊക്കെ കൂടുതലായിട്ടും അവരുടെ മലയാള ഭാഷ തന്നെയായിരുന്നു അവരെല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കതൊരു വലിയ ഒരു വലിയൊരു നേട്ടം തന്നെയായിരുന്നു മലയാള ഭാഷ എന്നാലിന്ന് മലയാള ഭാഷ അന്യം നിന്നു പോകുന്ന അവസ്ഥയാണ് കണ്ടോണ്ടിരിക്കുന്നത് മലയാള മലയാളികൾക്ക് മലയാള ഭാഷ എന്നത് ഭാഷ മാത്രമല്ല അവരുടെ സംസ്കാരം കൂടിയായിരുന്നു ഏതൊരു ഏതൊരു വ്യക്തിയേയും അവർ അവരെ അവരുടെ സംസ്കാരം അവരുടെ പ്രവർത്തി പെരുമാറ്റം ഏതൊരാളെ കണ്ടാലും അവർ മലയാളിയാണെന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അവരുടെ ഒരു സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ഒരു സംസാരത്തിൽപ്പോലും ഏതൊരു ഏതൊരു രാജ്യത്തിൽ നോക്കിയാലും ഒരാളെങ്കിലും മലയാളിയായിട്ട് ഏതൊരു രാജ്യങ്ങളിലും ഉണ്ടായിരിക്കും അവരുടെ ഭാഷ അവര് കൈവിടാതെ കൂടെത്തന്നെ പിടിച്ചിരിക്കും എന്നാൽ ഇന്ന് മലയാള ഭാഷയെന്നത് മലയാളം സംസാരിക്കുക എന്നത് ഈ ഒരു കാലഘട്ടത്തിലെ ജനങ്ങൾക്കും അതു പോലെ ഒരു ഈ ഒരു കാലഘട്ടത്തിലെ ഒരു ഒരു കുട്ടികൾക്കാണെങ്കിൽ പോലും മലയാള ഭാഷ സംസാരിക്കുക എന്നതൊരു കുറവുകേടാണ് അവർക്ക് മറ്റുള്ള സ് മറ്റുള്ള ഭാഷകളെ തേടിപ്പോകാനും മറ്റുള്ള ഭാഷകള് പഠിക്കാനും സംസാരിക്കാനുമൊക്കയാണ് മുൻതൂക്കം നൽകുന്നത് അതുപോലെതന്നെ മലയാളഭാഷ ഇപ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് എന്ന ഭാഷക്ക് മുന്നിൽ അടിയറവു പറയുകയാണ് ഇപ്പോഴത്തെ മാധ്യ മാധ്യമങ്ങളും അതുപോലെ സാമൂഹിക മാധ്യമങ്ങളുടെ വരവോടുകൂടി അതിൽ മലയാള ഈ മറ്റുള്ള ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ മലയാള ഭാഷ ഇംഗ്ലീഷ് ഭാഷ ഭാഷക്ക് മുന്നിൽ അടിയറവു പറയുകയാണ് അതുപോലെതന്നെ എന്നാൽപോലും ചില ആഘോ ആഘോഷത്തിനാണെങ്കിലും അവരുടെ സാംസ്ക്കാരിക തലത്തിലാണെങ്കിലും മലയാള ഭാഷക്ക് ചില ആൾക്കാർ ഇപ്പോഴും പ്രാധാന്യം നല്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്